ഹലോ ഗാന്ധാരി ഗേൽ റെസ്റ്റോറന്റല്ലേ അവിടുത്തെ അവിടെ കുറച്ച് സാധനം ഞാൻ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഓഡർ ചെയ്തിട്ട് അത് സമയത്തിന് കിട്ടിയും ഇല്ല അവിടുത്തെ ബിജുവിനോടാണ് പറഞ്ഞിരുന്നത് സാധനം കൊണ്ടുതരാനായിട്ട് പിന്നെ ഓഡർ ചെയ്ത സാധനം അല്ല വന്നേക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണോ ഇങ്ങനെയെല്ലാം എടുത്ത് കൊടുത്ത് വിടുന്നത് ഓരോ പിന്നെ സാധനങ്ങൾ അതുതന്നെ എല്ലാ കൊടുത്തുവിട്ട സാധനം നമ്മൾ ഓഡർ ചെയ്ത സാധനം നമുക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ പ്രത്യേകം ബിജുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ് ഇന്ന ഇന്ന സാധനങ്ങൾ വേണമെന്ന് അത് കൊണ്ടുവന്ന സാധനം ആകട്ടെ അത്ര ടേസ്റ്റും ഇല്ല നല്ല ഉപയോഗിക്കാൻ പറ്റാത്ത പിന്നെ ഇപ്പം ഞാൻ എന്നാൽ പിന്നെ ഈ സാധനങ്ങൾ ഞാൻ എന്തുവാണ് ചെയ്യേണ്ടിയത് പിന്നെ ബിജുവിനെ വിളിച്ചു കൊടുത്താൽ മതിയോ അതോ ബിജുവിന് പിന്നെ ഞാൻ ഏത് നമ്പരിലാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല സാധനം അത്ര നല്ലതല്ല ഞങ്ങൾക്കത് പറ്റത്തില്ല ഇത് ഞങ്ങൾക്ക് റിട്ടേൺ തന്നെ പറ്റത്തൊള്ളൂ അപ്പം ബിജു ഇങ്ങോട്ട് വരുവാണെങ്കിൽ ബിജുൻറ്റേൽ സാധനം കൊടുത്തുവിടാം നല്ല ഒരു റെസ്റ്റോറന്റല്ലേ ഞാൻ ഇതിനു മുൻപ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളയാണ് പക്ഷേ അന്ന് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയായിരുന്നു അത് ഇതിപ്പോൾ ഒരുമാതിരി ഞങ്ങൾ പറഞ്ഞ സാധനം കിട്ടിട്ടും ഇല്ല കിട്ടിയ സാധനം ഒന്നും അത്ര ടേസ്റ്റും ഇല്ല അതുകാരണം പിന്നെ ഈ സാധനം ഞങ്ങളെന്തുവാണ് ചെയ്യേണ്ടിയത് ഇത് ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന ഗാന്ധാരിയിലുള്ള തന്നെ ബിജുവിനോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ബിജുവിനെ തന്നെ വിളിച്ചിട്ട് ഈ സാധനം തിരിച്ച് അങ്ങോട്ടേക്ക് ഏൽപ്പിച്ചാൽ മതിയോ എങ്ങനെയാന്ന് അറിയത്തില്ല പക്ഷേ നമുക്ക് സാധനം വേണെന്താനും ഞങ്ങൾ ആവശ്യപ്പെട്ട സാധനം ഞങ്ങൾക്ക് വേണെന്താനും അതുകാരണം എന്തുവാ ചെയ്യേണ്ടിയത് അവിടുത്തെ മുതലാളിയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പരോ ഒന്ന് ഞാനിപ്പോൾ ഇത് കൊണ്ടു നമുക്ക് എപ്പോഴും കൊണ്ടുതരുന്ന ഒരു വ്യക്തിയാണ് ഈ ബിജു എന്ന് പറയുന്ന പുള്ളികാരൻ പുള്ളികാരൻ നിന്ന് മേടിച്ച സാധനം ആണ് ഇപ്പം ബിജുവിൻ്റെ ഫോൺ നമ്പരെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നും ഇല്ല ബിജുവിനെ വിളിച്ചായിരുന്നു എന്നിട്ട് കിട്ടുന്നില്ല പുള്ളിയെങ്ങാണ്ട് കൊടുക്കാൻ പോയിരിക്കുവാ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒരു നമ്പര് തന്നിട്ട് ഞങ്ങളുടെ ഈ സാധനം ഒന്നും ഇല്ല ഞങ്ങൾ ചോദിച്ച സാധനം തരുക അല്ലെങ്കിൽ പിന്നെ ഇത് എടുത്തിട്ട് ഞങ്ങളുടെ കാശ് തിരിച്ച് തരാനുള്ള സംവിധാനം എന്തോ വേണേലും ചെയ്യുക അല്ലാതെ ഇപ്പം ഈ സാധനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഞങ്ങൾക്കു വന്നിരിക്കുന്നത്